ഇന്നത്തെക്കാലത്ത് കുട്ടികളെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും വീട്ടുകാരെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിന്ന് പഠിച്ച് വലിയൊരാളാകാൻ വേണ്ടിയിട്ടാഗ്രഹിക്കുന്നവരാണ് മിക്ക ഉള്ള ഒരു അറുപത് ശതമാനം കുട്ടികളും അങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നീട് ചിലർ ആണെന്നുണ്ടെങ്കിൽ അന്യസംസ്ഥാനങ്ങളിലോ വിദേശത്തോ ഒന്നും പോകാതെ സ്വന്തം നാട്ടിൽ തന്നെ അവരുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് പോകാൻ താൽപ്പര്യം ഇല്ലാതെ സ്വന്തം നാട്ടിൽ തന്നെ നിന്ന് പഠിച്ച് മിടുക്കരാകുന്ന കുട്ടികളും ഇന്നുണ്ട് പക്ഷേ പകുതിയോളം കുട്ടികളും വിദേശത്ത് പോകാനാഗ്രഹിക്കുന്നവരാണ് പകുതിയോളം കുട്ടികളും അതിൽ ഇപ്പം ഈ രണ്ട് കൂട്ടരെയും എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിനീയറിങ്ങിന് പോകുന്ന കുട്ടികളുണ്ട് എം ബി ബി എസ് കോഴ്സിന് പഠിക്കുന്നവരുണ്ട് കളക്റ്ററാകാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട് സി എ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരുണ്ട് പിന്നെ ബിഎഡ് ടി ടി സി ഡിഗ്രി കോഴ്സുകൾ ഇങ്ങനെയൊക്കെ ഒട്ടുമുക്കാൽ കുട്ടികളും ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണം പഠിക്കാൻ എന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന കുട്ടികളാണ് ഒട്ടുമുക്കാൽ പേരും കാര്യം ഇന്ന് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എത്രയും പെട്ടെന്നൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ബാധ്യതയായിട്ടവർ കാണുന്നത് ഒരു ജോലി ഉണ്ടായാൽ നല്ലൊരു കല്യാണം കഴിക്കാം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടും ജീവിത നിലവാരം മെച്ചപ്പെടും എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ മലയാളികളിൽ അധികം പേരും അപ്പം അതുകൊണ്ട് നല്ലൊരു ജോലി ആദ്യം ഫസ്റ്റിലി ഒരു അഞ്ചക്ക ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്